ഇത് ഇവിടെനിന്നാണ് വിളിക്കുന്നത് ഒരു പാൻ കാർഡിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ് അപ്പോള് അതെൻ്റെ പാൻ കാർഡിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ അപ്പോള് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണെന്ന് അറിയാന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇപ്പോള് ഞാനിപ്പം ആദ്യമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പം അവിടെ വെക്കേറ്റ് ചെയ്തിട്ട് ഇപ്പം പുതിയൊരു സ്പോട്ടിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ പാന് കാര്ഡിലേക്ക് അപ്ഡേഷനായിട്ട് ചെയ്യണം അപ്പം ഇത് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റില്ലേ നമ്മളിവിടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമോ അതോ അങ്ങോട്ടേക്ക് വരണോ അതോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഒന്ന് പറഞ്ഞാല് നന്നായിരുന്നു ആ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഫോർവേഡ് ചെയ്താല് മതിയല്ലേ ഓക്കെ ആ ഇതില് നമ്മുടെ ഇമെയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ കറക്റ്റ് ചെയ്യണമല്ലേ ആ ശരി